ഓക്കേ ഓ ഓക്കേ ഓക്കേ ഓ ഓ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഇപ്പോൾ

ആണല്ലേ ആ ഹാ ഹാ ശരി ശരി അല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു രണ്ടാഴ്ച താമസിച്ചിട്ട് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുമോ ആ താമസിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മരുന്ന് തന്ന് വിടുകയാണ് ചെയ്യുക പക്ഷേങ്കിൽ നിങ്ങളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിച്ച് ചെയ്യുന്നതുതന്നെ ആണ് നല്ലത് ഇവിടെ ഓയിൽ മസാജും പിന്നെ കിഴി വെപ്പും അതും എല്ലാം കിഴിയും മണൽക്കിഴി അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെത്തന്നെ താമസിക്കുന്നത് ആയിരിക്കും നല്ലത് രണ്ടാഴ്ച അല്ലേ അത് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ മരുന്നൊക്കെ ഞങ്ങൾ തന്നു വിടുന്ന മരുന്ന് കൃത്യമായി നിങ്ങൾ കഴിക്കുകയും വേണം പിന്നെ ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യണം കുളിക്കുന്നതിന് മുന്നേ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിലൊക്കെ തരും അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഒക്കെ വ്യത്യാസം എന്തായാലും വരും അത് ചൂട് പിടിക്കുമ്പോഴൊക്കെ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതിനെക്കൊണ്ട് ബുദ്ധിമുട്ട് ഒന്നും ഇല്ല പിന്നെ ചിക്കനൊന്നും അത്ര നല്ലത് അല്ല കഴിക്കുന്നത് ഒന്നാമത് ബോഡി അത് ഹീറ്റ് ആവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ചില മരുന്നുകൾക്ക് പത്ത്യം നിർബന്ധം ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നടുവേദനയ്ക്ക് തരുന്ന മരുന്നിൽ എന്തായാലും പത്ത്യം തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് കൂടി നല്ലത് ഇന്ന് ഇനിയിപ്പം കിട്ടില്ല ഇന്ന് ഇപ്പം നാളെ രാവിലെ ഒരു പത്ത് മണി ആവുമ്പോൾ വരുന്നതായിരിക്കും നല്ലത് വേണ്ട വേണ്ട നിങ്ങളെ പേര് ഞാൻ ഇവിടെ എഴുതി വച്ചോളാം ഇന്നിപ്പം എല്ലാം ബുക്കിംഗൊക്കെ കഴിഞ്ഞതാണ് അപ്പം ഒര് അഞ്ച് അഞ്ച് മണി ഒക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളൊക്ക പൂട്ടിയിട്ട് പോവും പിന്നെ കാരണം ഉം ശരി ശരി അപ്പോൾ വരുമ്പോൾ നിങ്ങൾ മുന്നേ കാണിച്ച എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു വന്നോളൂ കേട്ടോ ശരി അപ്പോൾ എക്സറേ എം ആർ ഐ ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് കൂടി എളുപ്പം ആയിരിക്കും നിങ്ങളെ നടുവിൻ്റെ കാര്യമായ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് അതിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവില്ലല്ലോ ആണല്ലേ ഇവിടെ എല്ലാവരും ആ ഇവിടെ നിന്ന് ചെയ്തു പോയ ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല വ്യത്യാസം ഉണ്ട് എല്ലാവരും പറഞ്ഞിട്ടും ഉണ്ട് പിന്നെ സുഖ ചികിത്സയെന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത വർഷവും വരുന്നവർ ഉണ്ട് എപ്പോൾ എല്ലാ വർഷവും അത് വന്നിട്ട് ആ ചെയ്തു പോകുന്നവർ സ്ഥിരമായിട്ടുള്ള കുറേ ആൾക്കാരും നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അടുത്ത വർഷം വരും എന്തായാലും ഒരു മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം അങ്ങനെ ആണ് നമ്മൾ എല്ലാവരടുത്തും പറയാറ് അങ്ങനെ ചെയ്യുമ്പോൾ ആണ് ഈ നടുവിൻ്റെ ഒക്കെ കാര്യങ്ങളല്ലേ അപ്പോൾ ശരിക്കും മാറുന്നത് ഇല്ല ഇല്ല അവിടെ ഇതിനൊക്കെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുതരും അതിനൊക്കെ ഇവിടെ ആൾക്കാർ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട ഫുഡ്ഡും നമ്മൾതന്നെ തരുന്നതായിരിക്കും അതെ അതെ ഇതൊരു പാക്കേജ് ആണ് നിങ്ങൾ പത്ത്യത്തിൽ ഫുഡ്ഡാണ് തരിക അതുപോലെ നിങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യണമെങ്കിലും എവിടെ പോകണമെങ്കിലും എല്ലാം നിങ്ങളെ കൂടെ എപ്പോഴും ഒരാൾ എന്തായാലും നിങ്ങൾക്കായിട്ട് ഉണ്ടാവും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമ് തരുന്നുണ്ടാവും അപ്പോൾ വായിക്കാനുള്ള സൗകര്യം ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട് ശരി ശരി ഷൈന അല്ലെ അല്ലേ ഞാൻ ഇവിടെ പേര് എഴുതി വച്ചേക്കാം ഷൈനയുടെ വയസ്സ് ഒന്ന് പറയാമോ ശരി ഷൈന അപ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം നാളെ കാണാം ശരി യു ആർ വെൽക്കം